ഇന്നത്തെ സാഹചര്യത്തിൽ പ്രായമായിട്ടുള്ളവർക്ക് കളിക്കാൻ പറ്റിയ ഒരു കളി ഫുട്ബോളാണ് അല്ലെങ്കിൽ കാൽപന്ത് കളിയാണ് ഇത് തെരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇന്നത്തെ ജനതയ്ക്ക് പ്രമേഹം പോലുള്ള പല രോഗങ്ങളുടെയും പിടിയിലാണ് ഇതുകൊണ്ടുതന്നെ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ് എന്ന് കരുതിക്കോളൂ അവിടുത്തെ ഡോക്ടർ നമ്മളോട് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും കളികളിൽ ഏർപ്പെടാനാണ് അതിന് നല്ല കളിയായിട്ട് ഡോക്ടർ പറയുന്നത് ഫുട്ബോളാണ് ഫുട്ബാൾ പോലുള്ള കളികൾ നമ്മൾ കളിക്കുമ്പോൾ നമ്മുടെ ശരീരം വിയർക്കുകയും ആരോഗ്യ പ്രശ്നങ്ങൾ കുറയുകയും ചെയ്യുന്നുണ്ട് ഇതു തന്നെയാണ് പ്രായമായിട്ടുള്ളവർ കാൽപന്ത് കളിയിലോട്ട് കടന്ന് വരാനുള്ള പ്രധാന കാരണങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്